മലയാളഭാഷ നമ്മളുടെ സംസ്കാരത്തെയും വ്യക്തിത്വത്തെയും വളരെയധികം സ്വാധീനിച്ചിട്ടുണ്ട് എന്നുവച്ചാൽ മലയാളത്തില് നമുക്ക് ഒത്തിരിയേറെ സംസ്കാരങ്ങള് മലയാളത്തില് അടങ്ങിയിട്ടുണ്ട് എന്നു വച്ചാല് മലയാളത്തില് നമ്മള് ആൾക്കാരുതന്നെ റെസ്പെക്റ്റോടെയാണ് നമ്മളെ വിളിക്കുന്നത് പിന്നെ നമ്മുടെ ആചാര രീതികള് പിന്നെ നമ്മള് ആഘോഷിക്കുന്ന നമ്മുടെ ഓരോ ഫെസ്റ്റിവലുകള് അതൊക്കെ നമ്മുടെ വ്യക്തിത്വത്തെ വളരെയധികം സ്വാധീനിച്ചിട്ടുണ്ട് മലയാള ഭാഷ നമ്മുടെ സംസാര രീതികള് തന്നെ നമ്മള് ആരാണോ നമ്മളെങ്ങനെയാണു നമ്മള് ഏതു രീതിയിലുള്ള വ്യക്തിത്വം ആണ് നമുക്കുള്ളത് എന്നുള്ളത് മറ്റുള്ളവരെ കാണിച്ചുകൊടുക്കാന് അത് ഒത്തിരിയധിധികം നമ്മളെ സഹായിച്ചിട്ടുണ്ട്